കുടുംബത്തിൽനിന്ന് പിന്തുണയുണ്ട് നമുക്കുള്ള കഴിവുകളെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് കുടുംബത്തിൽനിന്ന് പിന്തുണ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉള്ളൊരു കഴിവ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് തന്നെ ഈ ഇടയ്ക്കാണ് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ വളരെ വൈകിയാണ് അപ്പം അത് കാണുമ്പത്തേക്ക് നമ്മളിങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ കൊള്ളാലോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ സെൻസ് ഉണ്ടല്ലോ എങ്ങനെ എടുക്കണം ഏത് ആങ്കിളീ നിന്ന് എടുക്കണം അങ്ങനൊരു സെൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന് പിന്നെ അവസരങ്ങളൊക്കെ തരുമ്പോൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു ആണ് കുടുംബത്തിൽ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരുംതന്നെ അല്ല നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുമ്പം അതിനെ ആ കൊള്ളാം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ ടെക്നിക്കലി വശങ്ങളൊന്നും അല്ല ഇത് ഇത് ശരിയല്ല ഇത് എങ്ങനെ എടുക്കണം അങ്ങനെ പറഞ്ഞുതരാനായിട്ട് കഴിവുള്ള ആരും കുടുംബത്തിൽ ഇല്ല പക്ഷേ എന്നാലും നമ്മളെടുക്കുമ്പം അതിന് അതിന്റെ അതിൻ്റെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ലതൊക്കെ പറഞ്ഞുതരും അവർ പ്രശംസിക്കാറുണ്ട് പിന്നെ നമുക്കതിന് അവസരങ്ങള് ഉണ്ടാക്കി തരാനും അവർ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം എല്ലാ രീതിയിലുള്ള പിന്തുണയും കുടുംബത്തിൽനിന്ന് അതായത് ഈ ഫോട്ടോഗ്രഫി എന്ന ഈ ഒരു നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ഇതാണല്ലോ ഇപ്പം ഇതിൻറ്റകത്ത് പറഞ്ഞിരിക്കുന്നപോലെ ഒരു വിനോദ വൃത്തിയാണ് അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് കുടുംബത്തിൽ നിന്നുള്ള എല്ലാ പിന്തുണയും കിട്ടാറുണ്ട്